കുക്കറിലാണ് ഞാൻ കഞ്ഞി വയ്ക്കുന്നത് പിന്നെ ചട്ടി മൺചട്ടിയിലാണ് മീന്കറി വെക്കുന്നത് പിന്നെനിക്ക് പാല് കാച്ചാൻ വേണ്ടി തന്നൊരു ഒരു സ്റ്റീലിൻ്റെ ഒരു ചരുവമുണ്ട് പിന്നെ മെഴുക്കുപുരട്ടി വെയ്ക്കാൻ വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി ഉണ്ട് അത് അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് പിന്നെ ചി ബീഫൊക്കെ കറിവെക്കാൻ വേണ്ടിയൊരു കുക്കറിനകത്താണ് ബീഫ് കറി വെക്കുന്നെ എനിക്ക് മൂന്ന് കുക്കറുണ്ട് ഒരെണ്ണം ചോറ് വെക്കുന്നത് പിന്നൊരെണ്ണം മീഡിയം സൈസിനകത്ത് ചിക്കൻ വയ്ക്കും അല്ല ബീഫ് വയ്ക്കും പിന്നെ ഒരു കുക്കറിനകത്തീ ചെറിയ പരിപ്പും ചെറിയ ചെറൈറ്റവ ണ്ട് പരിപ്പൊക്കെ കറി വയ്ക്കും ഈ സാമ്പാറിനുള്ള ഐറ്റംസ് വെയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കുക്കറുണ്ട് പിന്നെ ബിരിയാണി വെക്കാൻ വേണ്ടിത്തന്നെ ഒരൂ നോൺസ്റ്റിക്കിൻ്റെ ഒരു ക വലിയൊരു ഇതുണ്ട് പാത്രമുണ്ട് അതിനകത്ത് വെച്ചുകഴിഞ്ഞാല് ഒന്നും അടിക്കൊന്നും പിടിക്കത്തില്ല അതുകാരണം എനിക്കാപ്പാത്രം നല്ലിഷ്ടവുമാണ് പിന്നെ ഗ്ലാസ്സ് കാപ്പി കുടിക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ ഗ്ലാസുണ്ട് സ്റ്റീലിൻ്റെ ക കപ്പുണ്ട് വെള്ളം കുടിക്കാനായിട്ട് എടുക്കാനൊരു വെള്ള ക കപ്പുണ്ട്